ഹലോ ഇത് ഹസീസല്ലെ അലിൻ്റെ പേരെന്നാണ് വിളിച്ചണത് ഇമ്മനെ ഒന്ന് പോയാണ്ട് പൊടിയാട്ട്ന്ന് കൊണ്ടു വരണം പതിനൊന്ന് മണിക്ക് ഇറങ്ങി നിൽക്കും ഉമ്മ പതിനൊന്ന് മണിക്ക് തന്നെ പോണോട്ടോ സമയം മാറ്റം വരികയാണെങ്കിൽ ഇജ്ജ് വിളിച്ച് പറയണം ഇമ്മാനോട് വിളിച്ച് പറയാനാണ് ഈ വെയിലത്ത് ഇങ്ങനെ ചൂടത്ത് വെറുതെ നിൽക്കണ്ടേ അപ്പം അതിയിനാകില്ല വച്ചിട്ടാണ് പൂക്കോട്ടൂർ കൂടെ യൂണിറ്റി കോളേജിൻ്റെ അതിലെ അങ്ങനെ പോന്നാൽ മതി പുൽപത്തേക്ക് എത്രയാവും പൈസ അഞ്ഞൂറ് അഞ്ഞൂറുപ്യെന്നു ആവില്ല ഞാൻ അത്രയൊന്നും തരില്ല ഒരു മുന്നൂറ് ഒക്കെ തരുള്ളു അതിനാവുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വണ്ടി നോക്കാം എപ്പോഴാണ് പോവുക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം അതിനാണ്